മഴക്കാലം വരുമ്പോൾ വയറിളക്കം വരുന്നു വയറിളക്കം വയറിളക്കം ഭേദമാകാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഒ ആർ എസ് ലായനി കുടിക്കാറുണ്ട് അതല്ലാതെ നമ്മുടെ നാട്ടുവൈദ്യം പോലെ നമ്മൾ ഏറ്റവും കൂടുതല് കഴിക്കുന്നത് ജാതിക്കയുടെ ജാതിക്കയുടെ ജാതി പത്രിയും ജാതിക്കയുടെ കുരു പൊടിച്ചതും കുറച്ച് ജാതിപത്രിയും കുറച്ച് പഞ്ചസാരയും കൂട്ടി നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലൊരു റെമഡിയാണ്